ഇപ്പോള് ഓൾമോസ്റ്റ് എല്ലാവർക്കുമുള്ളൊരു പ്രശ്നാണ് മലബന്ധം കാരണം ഒരു എന്താണ് പറയുക ഡയജീഷ്യന് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മള് കഴിക്കുന്ന ഫുഡുകൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഒന്നുകില് നമുക്ക് ഓവർഫ്ലോയും കാര്യങ്ങളുമാണ് അല്ലെങ്കില് ഇങ്ങനെ വരാതിരിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോള് നമ്മളിപ്പം നോർമലായിട്ട് നോക്കുകയാണെങ്കില് നമ്മള് ലൂസ്മോഷനും കാര്യങ്ങളുമൊക്കെയാണെങ്കില് നമുക്കൊരു കട്ടൻച്ചായയില് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കില് അത് നന്നായിരിക്കും അല്ലാതെ നമുക്ക് നല്ല ബാത്റൂമില് പോകാത്ത അവസ്ഥയാണെങ്കില് ചെറുപഴം കഴിച്ചാല് അറ്റ്മോസ്റ്റ് ഓൾമോസ്റ്റ് അത് ഇതാണ് പിന്നെ അല്ലെങ്കില് പുളി ഐറ്റംസും കാര്യങ്ങളുമൊക്കെ കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയറാകാറുണ്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് മധുരക്കിഴങ്ങ് വേവിച്ച് കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് കാരണം നമുക്ക് നല്ലതുപോലെ പോകുന്നതിന് കാരണം അതുപോലെ കിഴങ്ങുവർഗ്ഗങ്ങള് ഓള്മോസ്റ്റ് കൂടുതലും നാരടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ ഒരുപാട് നല്ലവണ്ണം വെള്ളം കുടിക്കുക നല്ലവണ്ണം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മള് ഡെയിലി മോർണിംഗ് നമ്മള് പോയി നോക്കുക ബാത്റൂമില് പോകാൻ പറ്റുന്നുണ്ടോയെന്ന് അങ്ങനെ പറ്റുന്നില്ലെങ്കില്പ്പോലും നമ്മള് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിലും നന്നായിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങള് കൂടുതല് നമ്മള് ഉൾപ്പെടുത്തുകയാണെങ്കില് നന്നായിരിക്കും കാരണം